ചില ആളുകള് പക്ഷികളോട് ഉള്ള ഇഷ്ടം കൊണ്ട് ലവ് ബേർഡ്സ് തത്ത തുടങ്ങിയ പക്ഷികളെ ഒക്കെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് പക്ഷേ എൻറ്റൊരഭിപ്രായത്തില് ഈ പക്ഷികളേ ഒക്കെ നമ്മുടെ മുറ്റത്തേക്കും പറമ്പിലേക്കൊക്കെ ആകർഷിക്കാനായിട്ട് കുറച്ച് നാടൻ പൂച്ചെടികളൊക്കെ മുറ്റത്ത് വെച്ച് പിടിപ്പിച്ചാൽ മതി അതായത് ഈ ചെമ്പരത്തി ചെത്തി മന്താരം അങ്ങനെയുള്ള ചെടികളൊക്കെ വച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് പല തരത്തിലുള്ള പക്ഷികളൊക്കെ വരും അതുപോലെ പഴവർഗ്ഗങ്ങങ്ങളുണ്ടാകുന്ന മരങ്ങള് നട്ട് പിടിപ്പിക്കുക ചാമ്പക്ക പുളി പേരക്ക മുട്ടപ്പഴം അങ്ങനെയുള്ള മരങ്ങളുടെങ്കിൽ പല തരത്തിലുള്ള പക്ഷികള് ഇതൊക്ക ഭക്ഷിക്കാനായിട്ട് എത്തിച്ചേരും പിന്നെ വേണമെങ്കിൽ നമുക്ക് വെള്ളം ധാന്യമൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് അതവിടെ ലഭിക്കുമെന്നറിഞ്ഞാൽ അവ പിന്നീടും അത് വരുന്നതായിരിക്കും